ഈ ചാർജെറ് വാങ്ങിച്ചതിനു ശേഷം ഒരു മൂന്ന് നാലു തവണയായി ഇത് കേടു വന്നോണ്ടിരിക്ക്യ ഈ ചാർജെറ് ഒരു അരമണിക്കൂർ ഉപയോഗിക്കുമ്പോഴേക്ക് ഹീറ്റ് ആകുവാ പിന്നെ ചാർജ് കേറുന്നില്ല ബോട്ടിൻ്റെ ചാർജറും ഈ ചാർജറും വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് അതിനേക്കാൾ വില കൂടുതലാണെങ്കിൽ കൂടി ഇതിനെ മറ്റു ചാർജുകളെക്കാളും ഗുണം വളരെ കുറവാണ് അര മണിക്കൂറൊക്കെ കണ്ടിന്യു ആയിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും ഇത് ഹീറ്റാവുകയും ഓവർ ഹീറ്റായിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെയായിട്ട് വരുന്നുണ്ട് അതുപോലെതന്നെ ചാർജ് ചെയ്യുന്ന സമയം ഇതിൽ ചാർജ് ചെയ്യുമ്പോൾ വളരെയധികം കൂടുതലാണ് മറ്റ് ചാർജ്ജറാണെങ്കില് ഈ മുപ്പത് വോൾട്ടിൻ്റെ ചാർജ്ജറില് ചാർജ് ചെയ്യുമ്പോൾ നമുക്കൊരു അര മണിക്കൂറുകൊണ്ട് കേറുന്നത് ഇത് അതെ മുപ്പത് വോൾട്ടിൻ്റെ ചാർജർ തന്നെയാണ് ഇതിൻ്റെ പക്ഷെ ഇത് ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും എടുക്കുന്നുണ്ട് ഇപ്പോൾ വളരെയൊരു മോശപ്പെട്ടൊരു പ്രൊഡക്റ്റാണിത്